ആ സാറെ ഞാൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുക ആയിരുന്നു അപ്പോൾ ഇനി ഞാൻ ഇപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ സയൻസ് ആയിരുന്നു പ്ലസ് ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസർച്ച് പരമായിട്ട് ഒക്കെ പഠിക്കാൻ എനിക്ക് ഇൻ്ററസ്റ്റ് ഉണ്ട് അപ്പം അങ്ങോട്ട് ഐ എസ് ആർ ഓയിലോട്ട് ഒക്കെ ഇപ്പം വന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെ ആണ് സാർ ആ സൈൻ ചെയ്യാം സാർ

ഓക്കെ സാർ അപ്പോൾ അതിന് ഫീയും കാര്യങ്ങൾ ഒക്കെ എന്തേലും എക്സ്ട്രാ വരുന്നുണ്ടോ ഓ സിക്സ് മന്ത് പഠിക്കുന്നേൻ്റത് ആയിട്ട് ഉള്ള ഫീ വരുന്നുണ്ട് അല്ലേ സാർ ഓക്കെ അപ്പോൾ സ്റ്റേ സ്റ്റുഡൻറ്റ്സിന് നിൽക്കാൻ ആയിട്ട് ഉള്ള ഹോസ്റ്റലും കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ടോ അതോ ഞങ്ങൾ ഓക്കെ അപ്പോൾ അവിടെ ഹോസ്റ്റൽ ഫീ മാത്രം അടയ്ക്കണം ഞങ്ങൾ അവിടെ നിൽക്കാൻ അത്ര അല്ലേ ഉള്ളൂ സാർ ഓക്കെ അപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് നമുക്ക് അവിടെ ട്രെയിനി ആയിട്ട് കയറാമല്ലോ ആ ഓക്കെ സാർ അപ്പോൾ ഈ ആ ഓക്കെ സാർ അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ അപ്പോൾ മെയില് ചെയ്താൽ പോരെ സാർ ആ അപ്പോൾ അപ്പോൾ അപ്പോൾ ഓക്കെ സാർ ഞാൻ അപ്പോൾ അങ്ങോട്ട് എന്നാ നേരിട്ട് എത്തിക്കോളാം